നമ്മള് പാചകം ചെയ്യുമ്പോൾ എളുപ്പം ഉള്ള എളുപ്പമുള്ള ഭക്ഷണങ്ങള് ഉണ്ടാക്കാനും പറ്റും അതുപോലെത്തന്നെ പാടുള്ള ഭക്ഷണങ്ങളും ഉണ്ടാക്കാൻ പറ്റും എനിക്ക് പാടുള്ളത് എന്ന് പറയാനുള്ളത് സാമ്പാർ ഉണ്ടാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് അത് അറിയില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മള് കടികളായാലും കറികളായാലും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും നമുക്ക് പിന്നെ അതുപോലെത്തന്നെ പാടുള്ളത് പാടുള്ള ഒരുപാട് ഭക്ഷണ രീതികൾ ഉണ്ടല്ലോ നമുക്ക് ഇപ്പോൾ വരുന്ന ഒരുപാട് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് ആയിരിക്കും അത് നമ്മള് നോക്കി പഠിച്ച് അതിൻ്റെ ചേരുവകൾ എല്ലാം മനസ്സിലാക്കി മാത്രമെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റുകയുള്ളു പിന്നെ എളുപ്പമുള്ളത് എന്താ ദോശയായാലും ചട്നി ആയാലും മീൻ കറി ആയാലും ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാന് അതുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കാറുണ്ട് പിന്നെ ബുദ്ധിമുട്ടുള്ളത് ഒന്ന് സാമ്പാറ് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ എനിക്ക് അത് ഉണ്ടാക്കാൻ അറിയില്ല അതുകൊണ്ടാണ് അത് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നത്